കുട്ടിക്കാലത്ത് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഞങ്ങളെ സംബന്ധിച്ചടത്തോളം നമ്മുടെ ഒക്കെ ചെറുപ്പം എന്ന് പറയുന്നത് ഇപ്പം ഞാനൊക്കൊ ഒരു അറുപത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞയാൾ എന്നുള്ള നിലയിൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ കാലഘട്ടം വളരെ കഷ്ടപ്പാട് നിറഞ്ഞൊരു കാലഘട്ടമാണ് പക്ഷെ അന്നൊക്കെ നമ്മളെ സംബന്ധിച്ച് ഈ പഠിക്കുമ്പോൾ ഒന്നാമത് കുട്ടികളെല്ലാം തമ്മിൽ ഞങ്ങളിപ്പോൾ ഓരോ ക്ലാസ്സിൽ ഇഷ്ടം പോലെ പിള്ളേരാ അന്നൊക്കെ വീടുകളിലിഷ്ടം പോലെ പിള്ളേരുണ്ട് അതുകൊണ്ട് തന്നെ സ്കൂളുകളിലും ഇഷ്ടം പോലെ പിള്ളേരുണ്ട് ഒരേ ക്ലാസിൽ തന്നെ ഇപ്പോൾ ഒന്നാം ക്ലാസിലാണെങ്കിൽ അതിൽ തന്നെ അഞ്ചു ആറും ഡിവിഷനുകളന്ന് സ്കൂളുകളിൽ ഉണ്ടാകാറുണ്ട് അപ്പം ഈ കുട്ടികളൊക്കെ തമ്മിൽ പരസ്പരം ഒരു ബന്ധം ഉണ്ട് അപ്പ ഞങ്ങളിങ്ങനെ ഈ ഇൻറർവെല്ലിലും അതുപോലൊക്കെ ഇരിക്കുന്നിടത്തും അല്ലാതെ ക്ലാസിൽ അധ്യാപകർ വരുന്ന ആ ഒരു ബ്രേക്കിലൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പം ഇങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം പറയും ഇപ്പം മയിൽപീലി പുസ്തകത്തിൽ വെച്ചാൽ അത് അവിടെ ഇരുന്ന് പെരുകും വളരും അങ്ങനെ അതിങ്ങനെ നീളം വെക്കും എന്നൊക്കെ പറയുന്ന ഇതുണ്ട് അപ്പോൾ ഒരു മയിൽപീലിയുടെ ഒരു കഷ്ണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയും പറയുകയും മത്സരിക്കുകയും ഒക്കെ ചെയ്യും പിള്ളേരുമായിട്ട് അതുപോലെത്തന്നെ ഇല ഈ ചില ഇലകൾ വെച്ചാൽ അത് അവിടെ ഇരുന്ന് അത് ഇങ്ങനെ ഉണങ്ങി അതിൻ്റെ ആ നാരുകൾ മാത്രമായിട്ട് അവശേഷിക്കുന്ന പോലെ അത്രയും കാലങ്ങൾ ഇതിങ്ങനെ അതിനകത്ത് വെച്ചുകൊണ്ടിരിക്കും സ്റ്റാമ്പ് കളക്ട് ചെയ്യും അതുപോലെത്തന്നെ ഇത് തോട്ടിൽ തോട്ടിലിറങ്ങി പോയിട്ട് നല്ല വെള്ളാരം കല്ലുകൾ പെറുക്കി വീടുകളിൽ കൊണ്ടുപോയിട്ട് ഡബകളിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും അങ്ങനെ അതൊക്കെ എന്ന് പറയുന്നത് ഈ മനുഷ്യൻ പരസ്പരം സഹകരിക്കുകയും അല്ലെങ്കിൽ കുട്ടികൾ തമ്മിലും ഒക്കെ പരസ്പരം ബന്ധങ്ങളുണ്ടായിരുന്ന വീട്ടുകാർ തമ്മിൽ അയൽവാസികൾ തമ്മിൽ പരസ്പരം ബന്ധങ്ങുണ്ടായിരുന്ന വായനശാലകളിൽ പോകുന്ന അല്ലെങ്കിൽ വായിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടമായിരുന്നു ഈ പറയുന്ന ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം എന്ന് പറയുന്നത് അന്ന് കുട്ടിക്കാലത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഇപ്പോൾ കളിക്കാൻ അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്തെ കുട്ടികളെ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്കൂളിൽ പോവുന്ന കുട്ടികൾ പോലും ഒന്ന് പുറത്തിറങ്ങി ഓടുവോ ചാടുവോ കളിക്കുകയോ ഒന്നും ചെയ്യുന്നത് നമ്മൾ കാണാറില്ല അപ്പം അന്ന് കുട്ടികളൊക്കെ ഇങ്ങനൊക്കെ ഈ രീതിയിലൊക്കെ ബന്ധപ്പെട്ടിരുന്നത് അതുകൊണ്ട് തന്നെ അപ്പം നമ്മളത് ഇത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ സന്തോഷത്തോട് കൂടി ചെയ്യും കുട്ടികൾ തമ്മിൽ വളരെ സ്നേഹത്തോട് കൂടി പെരുമാറും അതുപോലെത്തന്നെ ഇപ്പം ഈ പറഞ്ഞപോലെ മയിൽപ്പീലികൾ ഇലകൾ കല്ലുകൾ സ്റ്റാമ്പുകൾ പിന്നെ അതുപോലെ ഇതെല്ലാം പെറുക്കി സൂക്ഷിക്കും പുസ്തകങ്ങളിൽ വെക്കും അല്ലെങ്കിൽ വീടുകളിൽ കൊണ്ടുപോയിട്ട് സൂക്ഷിക്കും ഇതൊക്കെ ഓരോ അനുഭവങ്ങളായിരുന്നു അന്ന് അപ്പം അതുകൊണ്ട് തന്നെ പരസ്പരം കുട്ടികളൊക്കെ തമ്മിലൊരു പരസ്പര ബന്ധം ഉണ്ടായിരുന്നു പരസ്പര സ്നേഹം ഉണ്ടായിരുന്നു വീട്ടുകാർ തമ്മിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഇന്നത്തെ കാലമെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് ഇതൊന്നും തമ്മിലൊരു ബന്ധവും ഇല്ല പരസ്പരം ക്ലാസിലിരിക്കുന്ന കുട്ടികൾ പോലും തമ്മിൽ തല്ലുന്നു ഈ അടുത്ത കാലത്ത് കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിരിക്കുന്ന എടുത്ത് നോക്കുകയാണെങ്കിൽ പത്താം ക്ലാസിൽ പരീക്ഷ എഴുതേണ്ട കൊച്ചിനെ കൂട്ടത്തിൽ പഠിക്കുന്നവൻ തന്നെ തല്ലി കൊല്ലുന്ന ഇതാണ് നമ്മുടെ ഈ നാട്ടിൽ നടന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് കുട്ടികൾ കൂടുതൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് മൊബൈലിലേക്കൊക്കെ മാറുമ്പോൾ അന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇതിനുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഈ പറയുന്ന സാഹചര്യങ്ങളൊക്കെയാണ് ഞങ്ങളന്ന് പുറത്തിറങ്ങി കളിക്കും അല്ലെങ്കിൽ ഞങ്ങളീ പറഞ്ഞ പോലെ മയിൽപീലി പെറുക്കി വെക്കും അല്ലെങ്കിൽ ഞങ്ങളങ്ങനെയുള്ള മറ്റ് കാര്യങ്ങൾ ചെയ്യും അങ്ങനെ ജീവിതം കഴിച്ച് കൂട്ടിയിരുന്നത് അങ്ങനൊക്കെയാണ് ഇപ്പം അതിൽനിന്നൊക്ക വ്യത്യസ്തായി ഇന്നിപ്പം മനുഷ്യൻ ചിന്തിക്കുന്നത് ആ രീതിയിലൊന്നും അല്ല ഇന്ന് പരസ്പരം എങ്ങനെയെങ്കിലും ഒക്കെ ആയിട്ട് തല്ലിയും തലകീറിയും മൊബൈലിൽ കളിച്ചും അല്ലെങ്കിൽ അധ്യാപകർ അന്ന് ചൂരൽ കൊണ്ട് നടക്കുന്നത് ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നാണ് അന്ന് ഞങ്ങളുടെ മാതാപിതാക്കളൊക്കെ വിശ്വസിച്ചിരുന്നത് ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു ഒരു നിരീഷണം അല്ലെ ഒരു വിധി പോലെ ഇങ്ങനെ പറഞ്ഞു ഒരു അധ്യാപകനെതിരെ കേസ് കൊണ്ടു കൊടുത്ത ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കൊച്ചിനെ തല്ലി എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയ്ക്ക് പറയേണ്ടി വന്നു അധ്യാപകർ വീണ്ടും ചൂരൽ എടുക്കട്ടെ എന്ന് ആ കാലത്തിലേക്ക് മാറിയിരിക്കുന്നു ഞങ്ങളുടെ ഒക്കെ സമയത്തെന്ന് പറഞ്ഞാൽ അധ്യാപകരുടെയിൽ ചൂരലുണ്ട് വേറെ എടുക്കാൻ പറയേണ്ട കാര്യമില്ല ആ ചൂരലിനെ പേടിയുണ്ട് ആ അന്ന് ഞങ്ങൾക്കിട്ടൊന്ന് തല്ല് കിട്ടിയാലുടനെ മാതാപിതാക്കൾ അതിനെ കേസ് കൊടുക്കാൻ കോടതിയിലോ അല്ലെങ്കിൽ വാദ്യാമാരെ തല്ലാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്കോ ചെല്ലുന്ന സാഹചര്യമില്ല കാരണം അത് ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള വിശ്വാസം മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നു ഇന്നത് മാറി അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് തോന്നുന്നത് ഇന്ന് വീടുകളിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു ഈ അണു കുടുംബങ്ങളായപ്പോൾ ഒരു കുട്ടിയോ അല്ലേ ഒന്നര കുട്ടിയോ രണ്ട് കുട്ടിയോ ഒക്കെ ഒരു വീടുകളിലുള്ളത് അപ്പം ഇത്ങ്ങളെ ഇങ്ങനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വഷളാക്കി ഇവർക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ലാത്ത ഇവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മാതാപിതാക്കൾ തയാറായിട്ട് നിൽക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ കുട്ടികൾ വഷളായിരിക്കുന്നതും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ പണ്ടത്തെ ഒരു കാലത്തിലേക്ക് തിരിച്ച് പോവുക എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എളുപ്പമാണോ എന്നറിയില്ല പക്ഷെ കുറേക്കൂടി ഈ കുട്ടികളെ ഒരു സമൂഹവുമായിട്ട് ബന്ധപ്പെടുന്നവരാക്കി മാറ്റിയെടുക്കാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അനിവാര്യമാണ് എന്നുള്ളതിനും യാതൊരു സംശയമില്ല ഒന്ന് വീടുകളിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ ഈ പറയുന്ന സാഹചര്യത്തിനൊരു മാറ്റം വരും ഇപ്പം നമ്മളിവിടെ നമ്മുടെ രാജ്യത്തെ ജനസംഖ്യ വർധിച്ചു ഇവർക്കല്ലാംകൂടെ തീറ്റിപ്പോറ്റാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നാമൊന്ന് നമുക്കൊന്ന് എന്നൊക്കെ പറയുന്ന സംവിധാനത്തിലേക്ക് മാറിയെങ്കിലും അതൊക്കെ ഒരു ഒരു സോഷ്യൽ ആനിമൽ എന്നുള്ള നിലയിൽ നമുക്ക് മനുഷ്യന് പരസ്പരം ഉണ്ടായിരുന്ന ആ ബന്ധങ്ങളെല്ലാം വിട്ടുപോയി ഇപ്പോൾ വീട്ടിൽ മാതാപിതാക്കൾ ടി വിയിൽ സീരിയലിൽ മുഴുകുമ്പോൾ മക്കൾ മൊബൈലിൽ വേറെ ഏതെങ്കിലും ആപ്പിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതുപോലുള്ള കാര്യങ്ങളിലോ മുഴുകും എന്നിട്ടാണ് ഈ പറയുന്ന മയക്കുമരുന്നിനും അല്ലെങ്കിൽ കൊള്ളക്കും കൊള്ളിവെപ്പിനും അടിമകളായിട്ട് ഇത്ങ്ങളെല്ലാം മാറുന്നത് അപ്പം ആ സാഹചര്യം ഒക്കെ ഒന്ന് മാറിക്കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ പഴയ രീതിയിലേക്കൊക്കെ പോവണം വീടുകളിൽ ആവശ്യത്തിനുള്ള കുട്ടികൾ വേണം അതുപോലെത്തന്നെ നമ്മുടെ വിദ്യാഭ്യാസം അതിനനുസരിച്ച് മാറണം നമ്മൾ മൊഡേൺ ആകും എന്ന് പറയുമ്പോഴും നമ്മളെല്ലാ ആധുനിക വൽക്കരണത്തിൻ്റെ പുറകെ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പം അത് മാത്രം പോരാ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മാനുഷ്യ മനുഷ്യനായിട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു സമൂഹജീവി എന്നുള്ളതിൽ ജീവിക്കുന്ന മനുഷ്യരായിട്ട് നമുക്ക് മാറണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ പഴയ വിദ്യാഭ്യാസ രീതികൾ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന അല്ലെ നമ്മുടെ അനുഭവങ്ങളൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ ആയിട്ട് ഷെയറ് ചെയ്യാനൊക്കെയുള്ള ശ്രമം ഉണ്ടാവണം